നാല് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നാല് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പതിനഞ്ച് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇരുപത്തെട്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച്